ഹലോ കേൾക്കാം പറഞ്ഞോളൂ മേഡം പറയൂ മേഡം കേൾക്കാം ആ

അത് മേഡം അത് ആ ആ തീർച്ചയായും തീർച്ചയായും മേഡം കൂടുതല് നമുക്ക് പാലാ കാഞ്ഞിരപ്പള്ളിയിലാണ് ഏറ്റവും കൂടുലായിട്ട് റബറ് കാണപ്പെടുന്നത് അത് ഇപ്പഴാണെങ്കിൽ മേഡം വന്ന് സമ് ഇവിടെ അടുത്തൊക്കെ തന്നെയാണ് നമുക്ക് വലിയ ദൂരമില്ല നമുക്ക് വണ്ടിയുണ്ട് നമ്മള് കേരളത്തില് കോട്ടയം ജില്ലയിൽ വരും ഇപ്പം മേഡം പേടിക്കണ്ട മേഡം ഈ നമ്പരിൽ കോണ്ടാക്റ്റെ ചെയ്ത് നമ്മുടെ സെൻറ്ററിൽ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ വണ്ടിയേൽ തന്നെ കൊണ്ടുപോകാം മേഡം ഒറ്റക്കാണോ വരുന്നത് അതോ ആരെങ്കിലും കൂടെ ഉണ്ടാകുമോ ആളുണ്ട് എത്ര പേരോളം വരും പതിനഞ്ച് പേരോളമുണ്ടെങ്കിൽ എത്രയാണേലും പറഞ്ഞാൽ മതി നമുക്ക് അത് അനുസരിച്ച് വണ്ടി അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അതനുസരിച്ച് നമ്മൾ അവിടുന്ന് പോയി അവിടെ ചെന്ന് ഇപ്പഴാണേ മേഡം വന്ന സമയം നല്ലതാണ് ഇപ്പഴാണേൽ പാലൊക്കെ എടുക്കുന്ന സമയമാണ് റബർ ഷീറ്റ് ആ പാല് റബറിൽ നിന്ന് നമ്മള് പാലെടുക്കുന്ന സമയാണിപ്പം സീസൺ സമയം ആയിരിക്കുകയാണ് അപ്പഴത്തേക്ക് അതാ അത് മേഡം ഇപ്പം അതിനെക്കുറിച്ച് മേഡം ഇതാകണ്ട നമുക്ക് നേരിട്ട് കണ്ട് അതിനെകുറിച്ചെല്ലാം വിശിദികരിച്ച് പറയുന്നതായിരിക്കും മേഡം എത്രയും പെട്ടന്ന് കോണ്ടാക്ട് ചെയ്ത് നമ്മളെ സമീപിച്ചാൽ മാത്രം മതി എന്നത്തേക്ക് വരുന്നേ വരാനാരിക്കും മേഡം ഉദ്ദേശിക്കുന്നത് രണ്ടാഴ്ചക്കകം ഓക്കെ മേഡം അതില് നമുക്ക് ഈ ഒരു ഒന്നര മാസത്തോളം പരിപാടി നടന്നുകൊണ്ടിരിക്കുക ഈ സ്ഥലം ഈ ഇതാണ് നടന്നുകൊണ്ടിരിക്കുക പാലെടുക്കുക റബറ് അടിക്കുക ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പം ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായും മേഡം അവിടെ വെള്ളച്ചാട്ടമുണ്ട് അരുവികളുണ്ട് എല്ലാവിധ കാര്യങ്ങളും ഉണ്ട് നമുക്ക് എന്ത് അവിടെ വന്നതിന് ശേഷം ആപ്പിൾ തോട്ടങ്ങൾ വരെ ഉണ്ട് നമുക്ക് അവിടെ കാണാനായിട്ട് ഒരുപാട് ഫ്രൂട്സ് ഐറ്റംസ് വരുന്ന ഒത്തിരി ഐറ്റംസ് ഒത്തിരി കാര്യങ്ങള് കാണാനുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി എല്ലാ സൗകര്യം മേഡം ഒന്നു കൊണ്ടും പേടിക്കണ്ട എത്ര പേര് വന്നാലും എല്ലാവരുടെയും സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുത്തു കൊണ്ടായിരിക്കും നിങ്ങളെ കൊണ്ടുപോകുന്നത് കൊണ്ടുവന്ന് തിരിച്ച് നിങ്ങള് പറയുന്നിടത്ത് എത്തിക്കുന്നതുവായിരിക്കും അതിനകത്ത് ഞങ്ങളുടെ ഇതിന് ഒരു പ്രയാസവും ഉണ്ടാകത്തില്ല മേഡത്തിന് ഇനിയും മേഡം ഇത് വന്നതിന് ശേഷം മേഡം ഇനി ആൾക്കാരേയും ഞങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവരാനായിട്ട് തയാറാകും അതുപോലെ കോൺഫിഡൻസോടെ കൊണ്ടുപോകുന്നൊരു കമ്പനിയാണ് ഞങ്ങളുടേത് മേഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട എല്ലാവിധ സൗകര്യങ്ങളോടൂടിയാണ് ഞങ്ങള് കൊണ്ട് പോകുന്നത് എത്രയും പെട്ടന്ന് തരും തരും ഉറപ്പായിട്ട് തരും മേഡം ഒന്ന് ഒരു പ്രാവശ്യം വന്ന് കഴിയുമ്പം മേഡം വീണ്ടും വീണ്ടും വരാനായിട്ട് മറ്റുള്ളവരെ കൂട്ടി വരാനാട്ട് തീരുമാനിക്കും അതുപോലത്തെ ഇതാണ് ഞങ്ങള് ചെയ്യുന്നത് മേഡം എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് വന്നാൽ മതി ആ ഓക്കെ മേഡം ഓക്കെ മേഡം താങ്ക്യൂ